ഹലോ ആ എന്നാ പറയുന്നു എന്നാ വിശേഷം പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇല്ല നമ്മുടെ

ആ നിങ്ങളുടെ എന്തോ ഫുഡൊക്കെ നമ്മുടെ അടുത്ത് ഒരു പരിചയം ഉള്ള ഒരു പുള്ളി ഉണ്ടായിരുന്നെ ആ പുളളിയുടെ അവരെത്തന്നെയാ അതിൻറ്റകത്ത് തന്നെ സ്റ്റേജിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചത് അവരെത്തന്നയാ

അതുപോലെ ഭക്ഷണത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളെല്ലാം അവരുതന്നെയാ ഏറ്റവും എല്ലാ എല്ലാ കാര്യങ്ങളും ഏറ്റത് നമ്മൾ ഒരാളെത്തന്നെ അങ്ങ് ഏൽപ്പിക്കുവാണെ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ തന്നെ നോക്കേണ്ട ആവശ്യം ഇല്ലല്ലോ സ്റ്റേജ് ഡെക്കറേഷനായി ഭക്ഷണത്തിൻ്റെ കാര്യം ആയി അതുപോലെത്തന്നെ എല്ലാ കാര്യങ്ങളും അവരെത്തന്നെ ഏൽപ്പിച്ചത് ആ ഉവ്വ ആ ആ അതെ ആ ഉവ്വ ആ ഉവ്വ ആ

ആ ഉവ്വ ആ ആ ഉവ്വ എല്ലാ എല്ലാ കാര്യങ്ങളും ഒരാളെത്തന്നെ ഏൽപ്പിച്ച കാരണം കൊണ്ട് എനിക്കതിൻ്റെ പിന്നെ പിന്നെ അതിന്റെ പുറത്തുകൂടെ നടക്കേണ്ട ആവശ്യം ഇല്ലല്ലോ അതിപ്പോൾ നമുക്ക് വിശ്വസ്ഥനായ ഒരാളെ ഏൽപ്പിച്ചേക്കാം ഏൽപ്പിച്ചത് ആ ഇല്ലില്ല കാരണം നമുക്ക് പലപരിപാടികളില്ലെ നമുക്ക് ഓരോരുത്തരെ വിളിക്കേണ്ടേ അതിൻറ്റകത്ത് ഓരോ എന്നാ ആ ബന്ധുക്കളെ സ്വന്തക്കാരെയല്ലേ ഒരു കല്യാണത്തിൻ്റെ ടെൻഷൻ വരുന്നു പറയുമ്പോൾ എന്തോരം ടെൻഷനുണ്ട് ചിലപ്പോൾ നമ്മൾ ഏറ്റവും പ്രിയപെട്ടവരെപ്പോലും ചിലപ്പോൾ വിളിക്കാൻ മറന്നുപോയ അവസ്ഥ വരെ വരും ആ ഉവ്വ അതിൽ ഈ പ്രദേശിക തലത്തിലുള്ളതായിരിക്കുളളൂ അല്ലാതെ വലിയ ഗാനമേളയുടെ പ്രശ്നം ഒന്നും ഇല്ല ആ ഒരു ഇപ്പം നമ്മുടെ പ്രാദേശികതലത്തിലുള്ള വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരവസരം കൂടെ കൊടുക്കുമല്ലേ നമ്മളതല്ലേ അതിൻ്റെ പ്രശ്നം

ആ ഉവ്വ ആ ഉവ്വ ആ ഉവ്വ ആ അപ്പോൾ ഞാനിങ്ങനെ പലരോടും പലരോടും ഇപ്പം ഇന്ന ആളെ ഏൽപ്പിച്ചാൽ കുഴപ്പം ഇല്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് എൽപ്പിച്ചത് അപ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെയാ ഏൽപ്പിച്ചേക്കണതെ അപ്പോൾ പിന്നെ അത് നടത്തിക്കോളും അപ്പോൾ അതിന് കുഴപ്പം ഇല്ല അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും അന്വേഷിക്കാൻ പോവേണ്ട അതുപോലെത്തന്നെ ആ അങ്ങനെ ഗാനമേളക്കാരോട് പറഞ്ഞിട്ടുണ്ട് വലിയ ഗാനമേള അല്ലെന്ന് മാത്രമുള്ളൂ ആ നമ്മളിപ്പോൾ അതിന് മാത്രം വലിയ പരിപാടിയോ ഇപ്പോൾ വലിയ ഫംഗ്ഷനൊന്നും നടത്തുന്നില്ലല്ലോ അതുപോലെ ഒക്കെ നടത്താനുള്ള നമുക്ക് സാമ്പത്തികം നമുക്ക് മറ്റു കാര്യാങ്ങളില്ലല്ലോ അപ്പോൾ നമ്മുടെ കൊക്കിലൊതിങ്ങിയത് നടത്തിയാൽ പോരേ അല്ലാതെ അയല്പക്കക്കാരൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നു പറഞ്ഞ് അതേ ലോകത്തിൽ ഒപ്പം എത്താൻ നമ്മളെക്കൊണ്ട് കഴിയില്ലല്ലോ മ് മ് ആ അത് കുഴപ്പം ഇല്ല അത് അതൊക്കെ അറേജ്മെൻറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളല്ലോ ഒറ്റ ട്രിപ്പിന് ഇരിക്കാൻ പറ്റുന്നു എന്ന് വരില്ലല്ലോ എല്ലാ എല്ലാവർക്കുംകൂടെ നമുക്ക് അതനുസരിച്ച് ചെയ്യാം